കേരളത്തിൽ ഇന്ന് ഒരുപാടാൾക്കാര് അവരുടെ ഒഴിവു സമയങ്ങളും മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകാനാണ് ഉപയോഗിക്കാറ് ഇപ്പം ഏത് ഇപ്പോൾ എല്ലാ എല്ലാവർക്കും ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ലീവുണ്ടാകാറുണ്ടല്ലോ ആ ഒരു സമയത്ത് ഫാമിലി ഒത്തൊരുമിച്ച് എവിടെയെങ്കിലും ഇപ്പോൾ ട്രക്കിങ് ആണെങ്കിലും അല്ലെങ്കിൽ പാർക്കിലാണെങ്കിലും അതുപോലെ വെള്ളച്ചാട്ടം പിന്നെ അരുവികള് പുഴകള് ബീച്ചില് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് പോകാറുണ്ട് പിന്നെ ഇപ്പോൾ രാവിലെയൊക്കെ സൺസെറ്റ് കാണാനൊക്കെ ഇവിടെ ഒരു വയനാട് ഭാഗങ്ങളിലും അതുപോലെ പിന്നെ കോഴിക്കോട് ചുരത്തില് താമരശ്ശേരി ചുരത്തിലൊക്കെ ഒരുപാട് ആൾക്കാര് പോയി നിൽ നിൽക്കാറുണ്ട് ഇപ്പോൾ ഒഴിവു സമയങ്ങളായിക്കോട്ടെ എവിടെയും പോകാനില്ല എങ്കിൽ അവര് ഒരു താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു ടോപ്പ് ടോപ്പില് പോയി നിന്നിട്ട് കാഴ്ചകള് കാണാൻ അല്ലെങ്കിൽ ആ ഒരു സമയത് ഒരു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ അവിടെ പോയി നിൽക്കാൻ നല്ല രസമാണ് എല്ലാം ഒരുപാട് പോകുന്ന വണ്ടികളൊക്കെ നിന്ന് എല്ലാവരും ഓരോ കാഴ്ചകൾ കാഴ്ചകളൊക്കെ കാണും അതുപോലെ ബീച്ച് സൈഡില് പോയിരിക്കാറുണ്ട് ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും ബീച്ചുള്ളതുകൊണ്ടുത്തന്നെ ഒഴിവ് ഒഴിവു സമയങ്ങളിലായിക്കോട്ടെ രാത്രി കാലങ്ങളിലൊക്കെ ഒരുപാടാൾക്കാര് ബീച്ച് ഏരിയയിൽ പോയിട്ട് സമയം ചിലവഴിക്കാറുണ്ട് അവിടുത്തെ ബീച്ച് സൈഡിലുള്ള ഫുഡും അതുപോലെ ഉപ്പിലിട്ട ഓരോ സാധനങ്ങളൊക്കെ കഴിച്ച് അവരുടെ സമയം ചിലവഴിക്കാറുണ്ട് പിന്നെ അവരുടെ ഹോബികൾ എന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ തേക്കടിലും പിന്നെ ജീഫ് ജീപ്പ് സഫാരിക്ക് പോകാറുണ്ട് അങ്ങനെ ഒരുപാടൊരുപാട് ഒരു ഒരുപാട് കാഴ്ചകൾക്കായും അതുപോലെ ഒരുപാട് ട്രിപ്പുകൾ പോകാനാണ് ഇപ്പോൾ ഒഴിവു സമയങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്